ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് ഒരാൾക്ക് സഹായം ആവശ്യമെന്ന് തോന്നിയാൽ അതൊരു സംഘടനം മൂലം പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ നവീന മാധ്യമങ്ങൾ ഫേസ്ബുക്ക് അങ്ങനെ ഉള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് അതിലൂടെ ന്യൂസ് കൊടുക്കുകയും ഒത്തിരി സഹായങ്ങൾ ഒത്തിരി പേർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് പണ്ടായിരുന്നെങ്കിൽ അത് ജിവിത ജീവകാരുണ്യ സംഘടനകൾ വഴി ആൾക്കാരുടെ വീടുകളിൽ കയറി ഇറങ്ങി അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്പോട്ടിൽ എല്ലാവർക്കും സഹായം ലഭിക്കുന്നുണ്ട് പൈസ ഉള്ള ആൾക്കാർ ഇപ്പോൾ പൈസ നമുക്ക് നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഗൂഗിൾ പേ അങ്ങനെ ഉള്ള സംഭവങ്ങൾ വഴി അക്കൗണ്ട് വഴി കൈമാറാം മറ്റുള്ളവർ അറിയാതെ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും അങ്ങനെ ചെയ്യാം പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒത്തിരി ഇപ്പോൾ വൃദ്ധമന്ദിരങ്ങൾ ആണ് കൂടുതലുമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ വീടുകളിലും മാതാപിതാക്കന്മാർ തനിയെയാണ് കുട്ടികളെല്ലാവരും പുറത്തുപോയി പഠിക്കും അവിടെ സെറ്റില്ഡ് ആവുകയും ചെയ്യുന്നു ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് എസ് ഓ എസ് ആലുവ എസ് ഓ എസ് വില്ലേജ് ആണ് അത് അവിടെ നിന്ന് വച്ചൊരു കുട്ടികളാണ് അനാഥാലയമാണ് കുട്ടികൾ താമസിക്കുന്ന സ്ഥലമാണ് പക്ഷേ കുട്ടികൾക്കത് ഗ്രഹാന്തരീക്ഷം ഉൾക്കൊള്ളുന്ന ഒരു അനാഥാലയമാണ് അതായത് ആ സ്ഥലത്ത് ഒരു പത്തു പതിനഞ്ച് വീടുകൾ ഉണ്ട് ഓരോ വീട്ടിലും ഓരോ ആ പത്ത് പതിനഞ്ച് കുട്ടികളുടെ അടുത്തുണ്ടാവും അവർക്ക് ഒരു അമ്മയുണ്ടാവും അമ്മ എന്ന് പറയുന്നത് മറ്റ് ബാധ്യതകൾ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ വിധവകളായ അങ്ങനെയുള്ള സ്ത്രീകളാണ് അവിടെ അവരെ നോക്കുന്നത് അപ്പോൾ ഒരു വീട്ടിൽ എങ്ങനെയാണോ ആ കുടുംബം നോക്കുന്നതുപോലെ തന്നെയാണ് അവിടെ ഒരു അമ്മയുടെ കീഴിൽ മക്കൾ പഠിക്കുകയും വളരുകയും അവരെ കല്ല്യാണം കഴിപ്പിച്ച് അയക്കുകയും ചെയ്യുന്നു